ഞാൻ തമിഴ്നാട്ടിലേക്ക് പോയിട്ടൂണ്ട് അതിന് വേണ്ടിയിട്ട് തമിഴ്നാട്ടിലേക്ക് പോയതെന്തിനാണെന്ന് വച്ചാൽ ഞാൻ പാട്ട് പഠിക്കാൻ ആയിരുന്നു തമിഴ്നാടെന്ന് പറയുന്നത് പാട്ടിൻ്റെ ഒരു കർണാട്ടിക് സങ്കീതത്തിൻ്റെ ഒരു പ്രധാന ഒരു സ്ഥലമാണ് തമിഴ്നാട് തമിഴ്നാട്ടിൽ പോയിട്ട് ഞാൻ കർണാട്ടിക് സങ്കീതം പഠിച്ചു ഗുരു ഗുരുവിൻ്റെ കയ്യിൽ നിന്ന് ഞാൻ കർണാട്ടിക് സങ്കീതം പഠിച്ചു പിന്നേ അവിടെ നിന്ന് ഞാൻ തബല ഹാർമോണിയം മൃദങ്കം അങ്ങനെ വേറെ കൊറേ സംഭവങ്ങളൊക്കെ ഞാൻ പഠിച്ചു പിന്നെ എനിക്ക് വളരെയേറെ വ്യത്യസ്ത്തമായ കുറേ അനുഭവങ്ങളായിരുന്നു ഉണ്ടായിരുന്നത് പാട്ട് പഠിക്കാൻ പോയിരുന്ന ഞാൻ വേറെയും കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട് ഞാൻ അവിടെ കുറെ സ്ഥലങ്ങൾ ഞാൻ യാത്ര ചെയ്തു കുറേ ആൾക്കാരെ പരിചയപ്പെട്ടു കുറെ നമ്മളെ പോലെയുള്ള കുറെ വ്യത്യസ്തമായ ആൾക്കാരെ പരിചയപ്പെട്ടു പിന്നെ ഇതേ പോലെ തന്നെ ആരുന്നു ഞങ്ങള് ഹമ്പിയിലേക്ക് പോയതും ഹമ്പിയിൽ പോയപ്പോളും ഞാൻ ദേ ഹിസ്റ്റോറിക്കൽ സംഭവങ്ങൾ പഠിക്കാനായിട്ടാണ് ഞാൻ പോയത് അവിടെ പോയപ്പോഴും അതെ കുറേ വ്യത്യസ്ഥമായ ആൾക്കാരെ കണ്ടു കണ്ടുപിടി കണ്ടുമുട്ടി പല വ്യത്യസ്ഥമായ കുറേ സ്ഥലങ്ങൾ കാണാൻ പറ്റി പിന്നെ ആൾക്കാരുടെ വത്യസ്തമായ കുറേ ഭക്ഷണങ്ങൾ കഴിക്കാൻ പറ്റി പിന്നെ കുറേ ഭംഗിയുള്ള സ്ഥലങ്ങൾ കുറേ ഭംഗിയുള്ള വീടുകളും കുറെ ഭംഗിയുള്ള മനുഷ്യർ ഒക്കെ നമുക്ക് കാണാൻ പറ്റി പിന്നെ കുറേ പേരായിട്ട് കുറേ സൗഹൃദം സ്ഥാപിക്കാൻ പറ്റി നമ്മൾ വിചാരിക്കും നമ്മൾ ആൾക്കാരായിട്ടുമൊന്നും മിണ്ടുക ഉണ്ടാവില്ല നമ്മൾ നമ്മളെ നാട്ടിൽ ഇല്ലാത്ത ആൾക്കാരുമായിട്ട് നമ്മൾ സംസാരിക്കില്ല എന്ന് പക്ഷേ നമ്മൾ അവർ ആയിട്ടും നമ്മൾ സ്വന്തം നാട്ടുകാരെ പോലെ തന്നെ നമുക്ക് വർത്തമാനം പറയാൻ പറ്റി നമുക്ക് അവരുമായിട്ടൊരു പ്രത്യേക ആത്മബന്ധം ഒക്കെ നമുക്ക് ലഭിച്ചു പിന്നെ ഞാൻ ഇതുപോലെ പല സലങ്ങളിലേയ്ക്കും പോയിട്ടുണ്ട് പ്രത്യേകിച്ച് എൻ്റെ ഞാൻ പഠിക്കാൻ വേണ്ടിയിട്ട് ഞാൻ വേറെ ഒരു ജില്ലയിലേക്ക് തന്നെ പോയിട്ടുണ്ട് ആ ജില്ലയിലും അതേ കുറേ ഭംഗിയുള്ള സ്ഥലങ്ങളും കുറേ ആൾക്കാരെയും ഒക്കെ നമ്മൾ കണ്ടു മുട്ടി പിന്നെ അവിടുത്തെ ഭക്ഷണങ്ങളൊക്കെ നല്ല സ്വാദായിരുന്നു ഇപ്പം നമ്മൾ വിചാരിക്കും നമുക്ക് നമ്മളെ കൊണ്ട് ഇതൊന്നും സാധിക്കില്ല എന്ന് പക്ഷെ നമ്മൾ ശ്രമിച്ചാൽ നമ്മളെ കൊണ്ട് എന്തും സാധിക്കും